ഹലോ ആ ഇലക്ട്രീഷ്യൻ അല്ലേ ആ ഞാൻ പാറത്തോട്ടത്തിൽ നി ന്നാണ് വിളിക്കുന്നത് അപ്പം എൻ്റെ വീട്ടിലെ കറണ്ട് സപ്ലയിൽ ചെറിയ പ്രശ്നമുണ്ട് അപ്പം കറണ്ട് ഡ്രിപ്പ് ആയി പോകുകയാണ് രണ്ട് മുറിയിൽ ലൈറ്റ് തെളിയുന്നില്ല ഒന്ന് വരാൻ പറ്റുമോ പാറത്തോട് നിന്ന് പള്ളി കഴിഞ്ഞാൽ മുകളിലേക്കുള്ള അങ്ങനെ ഇടിപ്പാറക്ക് പോകുന്ന വഴിക്കാണ് ആ ആ നൂറ്റി മുപ്പത്

ആ പത്ത് പതിനൊന്നാം വാർഡ്

ഇതിന് മുമ്പ് അങ്ങനെ കംപ്ലൈൻ്റ് വന്നിട്ടില്ല

ആദ്യമായിട്ടാണ് അല്ല അതിനകത്ത് തന്നെ വച്ചതാണ് ആ വയറിങ്ങ് അകത്ത് പന്ത്രണ്ട് വർഷമായതാണ്

ആ ഇന്നലെ ഇന്നലെ ഇന്നലെ തൊട്ടാണ് സംഭവിച്ചത്

സാധാ കിണറാണ്

ഇല്ല ഇല്ല ആരെയും കാണിച്ചിട്ടില്ല ആ ആ ഇല്ല ഇല്ല ആ ആ വെള്ളമല്ല കറണ്ട് ഡ്രിപ്പ് ആയി പോകുന്നതുകൊണ്ട് വെള്ളമടിക്കാൻ പറ്റുന്നില്ല ആ ആ ആ ഷോർട്ടായോ ഇല്ലയോ എന്നൊന്ന് നോക്കിയാലെ അറിയത്തുള്ളു അറിയത്തില്ല അതിന് ആ കട്ടായി പോകുമോ വല്ലതും ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണം അതിനെ കുറിച്ചു എനിക്ക് അത്ര ഗ്രാഹ്യമില്ല ആ ഇടി ആ ചെറിയ ആ ചെറിയ ഇടിയൊക്കെ ഉണ്ടായിരുന്നു അതുകാരണം വല്ലതും പറ്റി കത്തി പോയതാണോ എന്നും നമുക്ക് അറിയത്തില്ല

ഡ്രിപ്പ് ആയി പോകുവാണ്

ആ മൊത്തത്തിൽ അല്ല പോകുന്നത് ഇടയ്ക്ക് ഒന്ന് രണ്ട് റൂമുകളിലാണ് ഇല്ലാതെ വരുന്നുള്ളു

ആ ആ ആ ആ ഓരോ ആ സെക്ഷൻ സെക്ഷൻ തിരിച്ചുള്ള ആ അത് കൂട്ടാം ആ എലെക്ട്രിസിറ്റി ബോർഡിനെ അറിയിച്ചില്ല അവർ കറണ്ട് വീട്ടിൽ ഉള്ളതുകൊണ്ട് വീട്ടിൽ ലൈനുള്ളത് കൊണ്ട് അവർ അത് പരിഹരിക്കുമെന്ന് തോന്നുന്നില്ല ആ ആ ആ അറിയിച്ചിട്ടില്ല അറിയിക്കേണ്ടതുണ്ടോ ആ ഹാ ഹാ

ആ ആ

ആ ഹാ പിന്നെ ആ ഓ വേറെ ഒന്നും വേറെ കുഴപ്പമൊന്നുമില്ല വരുമ്പം ഒന്ന് വിളിച്ചിട്ട് വന്നാൽ മതി കട്ട് ചെയ്തത് ആയിരിക്കും ആ പിന്നെ മതി ആ ആ താങ്ക് യു ആ ഓക്കെ